ആ ഭയങ്കര പല്ല് വേദന എന്താ ചെയ്യുക ഡോക്ടറെക്കെ എപ്പോഴാണു വരേണ്ടത് പല്ലൊക്കെ എടങ്ങാറായി ഓ ഓ ആ ആ അണയിലെ പല്ല് രാവിലെ ആ ഉണ്ട് പല്ല് പല്ല് പല്ലിളകിപ്പോയി ഒരു പല്ല് ഇളകിപ്പോയി പിന്നെ എല്ലാ പല്ലും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്

ആ ആ തലവേദനയുണ്ട് ആ ആയി ആയിക്കോട്ടെ ഡോക്ടറെ ആയിക്കോട്ടെ ആ ഹ ഹ ഹ ആ

പേരാണോ പേര് ജയപ്രകാശ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ മറ്റെന്നാള് ഒന്നര മണിയാകുമ്പോള് ആ ആ ആയിക്കോ ഡോക്ടറെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നര മണി ആകുമ്പോഴേക്കും വരാം കെട്ടോ ആയിക്കോട്ടെ ശരി ശരി ആ ആയിക്കോട്ടെ ഓക്കെ ഓ ആ ആ ആ ആ ഹ ശരി